ഒത്തൊരുമ എന്നതാണ് ജില്ലയുടെ ഐക്യത്തിനും സമൂഹത്തിനും ഏറ്റവും ആദ്യം വേണ്ടത് ഒത്തൊരുമയാണ് ഈ ഒത്തൊരുമ എന്ന് പറഞ്ഞാല് കൂടുതലും ഇന്നേ പല സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒത്തൊരുമ എന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ പഴയ ആചാരങ്ങളെയും വയനാട് ജില്ലക്കാണെങ്കിൽ വയനാടിൻ്റെ ദേശീയ ഉത്സവം എന്നു പറഞ്ഞാൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വല്ലൂർക്കാവ് ഭഗവതീ ക്ഷേത്രത്തിലെ ഉത്സവമാണ് അവിടെ എന്ന് വെച്ചാൽ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും വന്ന് സഹകരിച്ച് ഒത്തൊരുമയോടെ വിജയകരമാക്കുന്ന ഒരു ഉത്സവം തന്നെയാണത് ഇപ്പോൾ അതിനവിടെ ആരും മതത്തിൻ്റെ ഇത് നോക്കാറില്ല കാരണം എല്ലാവരും ഒരുപോലെ വന്ന് സഹകരിക്കും സഹകരിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവമാണ് വയനാടിൻ്റെ ജീവിതരീ പൊതുവായ സാമൂഹ്യരീതിയെന്നു പറഞ്ഞത് തമ്മിൽ തല്ല് പൊതുവേ കുറവാണ് ഇത് തന്നെയാണ് മെയിൻ പിന്നെ കൂടുതലും ഒത്തൊരുമിച്ച് സഹകരിച്ചും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നേറുന്ന ഒരു സാമൂഹ്യരീതിയാണ് വായനാടിനുള്ളത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വായനാടിൻ്റെ ജീവിതനിലവാരവും ജീവിതരീതിയൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്